ആ ചേച്ചി വരൂ പൂവ് ഏതൊക്കെ പൂവാണ് വേണ്ടത് അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് ഓണമായിട്ട് സ്പെഷ്യലായിട്ട് കുറെ പൂക്കൾ വന്നിട്ടുണ്ട് ആ അല്ല നമ്മളിപ്പോൾ ഇവിടെ റേറ്റ് കമ്മിയുള്ള ഒരു ഷോപ്പ് ഇതാണ് ഓക്കേ ഇപ്പോൾ എന്താണ് എത്ര വലിയ പൂക്കൾ ആണോ ആ അപ്പോൾ വലിയ എത്ര അടി എട്ടടി പത്തടി ആ ഒരു ലെവലിൽ പൂക്കളം വേണ്ടി വരുമല്ലെ പൂവുകൾ ആ അപ്പോൾ നമുക്കിപ്പോൾ അതിന് കുറച്ച് കൂടുതൽ പൂക്കൾ വേണ്ടി വരും എന്നേക്ക് ആണ് ഇത് ഓക്കേ നമുക്ക് ഇവിടെ ആ നമുക്ക് ഇവിടെ എല്ലാ പൂക്കളും ഉണ്ട് ഇപ്പോൾ ചെണ്ടുമല്ലി രണ്ട് കളറുണ്ട് അതെ പോലെ റോസാ പൂവ് പിന്നെ എല്ലാ പൂക്കളും ഉണ്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ പൂ ശേഖരം ആണ് ഓക്കേ ഇതിപ്പോൾ ആ കിലോയാണ് ചെണ്ടുമല്ലി കിലോയാണ് റോസാ പൂ മാത്രം എണ്ണമാണ് എണ്ണമെന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് പത്തു രൂപയാണ് അങ്ങനെ നമുക്ക് റോസാപൂ തന്നെ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഇത് ആറ് ആ പിന്നെ കിലോ എൻപത് രൂപയാണ് ചെണ്ടുമല്ലി എല്ലാ എല്ലാ കളറും ഈ കാണുന്ന എല്ലാ കളറും ആ റേറ്റ് തന്നെയാണ് കിലോ എൻപത് രൂപ ഇതിപ്പോൾ എത്ര കിലോ വേണ്ടി വരും പത്ത് കിലോ ആ പത്ത് കിലോ പത്ത് കിലോ വച്ച് മതിയല്ലേ ചെണ്ടുമല്ലി പത്ത് കിലോ പത്ത് കിലോ എടുക്കാം പിന്നെ ഈ ജമന്തി ഓക്കേ അപ്പോൾ ഒരു അഞ്ച് കിലോ ജമന്തിയെടുക്കാം പിന്നെ സൂര്യകാന്തി ആ രണ്ട് കിലോ എടുക്കാമല്ലെ

ആ ഓക്കേ പിന്നെ ആ പറഞ്ഞോളൂ അത് എത്തിക്കാം നിങ്ങൾക്ക് വരാൻ പറ്റുവാണേൽ അങ്ങനെ അല്ലെങ്കിൽ അവിടെ എത്തിച്ചുതരാ എത്തിച്ചുതരാം നമുക്ക് ഇതിപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്ക് ചെയ്യണ്ടേ നമുക്ക് അത് കൊണ്ടുവന്നിട്ട് എത്തിച്ചുതരണേൽ അങ്ങനെ എത്തിച്ചു തരാം എവിടെയാണിപ്പോൾ കമ്പനി എവിടെയാണ് വരുന്നത് ഓ അവിടെ എത്തിച്ചു തരാമല്ലോ അവിടെ ഒരു എത്ര മണിയാവുമ്പോഴത്തേക്ക് എത്തിച്ച് തരേണ്ടി വരും രാവിലെ ഒരു ഏഴ് മണി ആവുമ്പത്തേക്ക് എത്തിച്ചു തന്നാൽ പോരെ ഓ അവിടെ എത്തിച്ച് തരാൻ പറ്റും ഏഴ് മണി ആവുമ്പോത്തിന് എത്തിച്ചു തരാം ഇതിപ്പോൾ ഇങ്ങനെയുള്ള പൂ വേറെ ഏതെങ്കിലും വെറൈറ്റി പൂക്കൾ ആ വാടാമല്ലി കിലോ അൻപത് രൂപയാണ് അത് ഒരു അഞ്ച് കിലോ എടുക്കാം എത്ര കിലോ വേണം ഓക്കേ അതൊരു അഞ്ച് കിലോ എടുക്കാം പിന്നെ മൂക്കുറ്റി വേണോ മൂക്കുറ്റി മഞ്ഞ യെല്ലോ നാട്ട് പ്രദേശത്തു മാത്രം കണ്ടു വരുന്ന പൂവാണ് അപ്പോൾ അധികം എവിടെയും കാണാറില്ല അതെടുക്കാമല്ലെ അതെടുക്കാമല്ലെ ഓക്കേ അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ പാലക്കാട് എത്തിച്ചു തരാം ഈ സ്ഥലത്ത് ഒരു ഏഴ് മണിക്ക് എത്തിച്ച് തരാം ഓ ലൊക്കേഷൻ അയച്ച് തന്നാൽ മതി ഞാൻ എത്തിച്ച് തരാം ഇതിന്റെ പേയ്മെന്റ് അഡ്വാൻസ് തന്നാൽ ഓക്കേ അഡ്വാൻസ് ഗൂഗിൾ പേ സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേ തന്നാൽ മതി ഓക്കേ ശരി